ഹലോ ആ വെളിയനാടുള്ള അഭിലാഷേട്ടനല്ലേ ഞാനിവിടെ കുന്നംകീരിയിൽ നിന്ന് നിവ്യയെന്ന് പറയുന്ന ആളാണ് വിളിക്കുന്നത് മുട്ടത്ത് ഞാൻ വിളിച്ചത് നമുക്ക് ഈ വരുന്ന പതിനാറാം തീയതി വീട്ടിൽ ഒരു പ്രോഗ്രാമുണ്ടായിരുന്നു ടീച്ചേഴ്സിൻ്റെ മീറ്റിങ്ങ് അപ്പം അത് ഇരുപത്തഞ്ച് ടീച്ചേഴ്സാണ് വരുന്നത് അപ്പം നമക്കതിന് വേണ്ടീട്ട് വൈകിട്ട് ഫുഡ് വേണം വൈകീട്ടൊരു അഞ്ചരക്കാണ് പ്രാർഥനയാണ് പ്രാർഥനയോടെയാണ് തുടങ്ങുന്നത് അപ്പം അഞ്ചരക്ക് പ്രാർഥനയാണ് ഒരു ആറര ഏഴ് മണിക്കാണ് ഫുഡ് കൊടുക്കണേ അപ്പോൾ ഒരു ആറ് മണിയാകുമ്പോഴത്തേക്കും ഫുഡ് എത്തിക്കണം എന്നുള്ള ഒരിതിലാണ് അപ്പം ഞങ്ങൾ ഞാനുദ്ദേശിക്കുന്നത് പാലപ്പം അവൈലബിളായിരിക്കുമോ ആണല്ലേ ഓക്കേ അപ്പം പാലപ്പവും കറിയായിട്ട് താറാവ് കറി മതി താറാവ് സ്റ്റൂ വെച്ചാലും മതി അപ്പം പാലപ്പവും താറാവും മൊത്തം പാലപ്പവും താറാവും വെക്കണമെന്നില്ല കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ പൊറോട്ടയും പൊറോട്ടയും തരത്തില്ലേ ആ ശരി പൊറോട്ടയും ചിക്കൻ കൂടെ വേണമെങ്കിൽ അങ്ങനേയും കോമ്പിനേഷൻ അപ്പം രണ്ടും പകുതി പകുതി വെച്ച് മതി ആ അങ്ങനെ മതി അങ്ങനെ മതി അപ്പം അങ്ങനെ വെച്ച് തന്നാൽ മതി അപ്പം എത്ര രൂപയാകും ശകലം കിഴിവൊക്കെ തരണേ അതിച്ചിരി കൂടുതലല്ലേ അപ്പം എത്രയാ ഒരെണ്ണത്തിനെത്ര വെച്ചാണ് ആണല്ലേ ഓഹ് ശരി അപ്പം ശകലം കിഴിവ് ആ ഓക്കേ അത് ഓക്കേ അത്രയും രൂപ ഒക്കെയാ ആ ശരി അപ്പം ഇവിടെ എത്തിക്കുമോ എത്ര മണിയാകുമ്പോഴത്തേക്കും ആറ് മണിയല്ലേ ആ ആറ് മണിയാകുമ്പം തന്നെ എത്തിക്കണേ ഞങ്ങൾക്ക് മീറ്റിങ്ങ് അഞ്ചരക്ക് തുടങ്ങും അപ്പം വഴി എങ്ങനെ ആയിരിക്കും കൊണ്ടുത്തരുന്നത് ആ വഴിയെന്നോട് സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതിയേ വിളിച്ചാൽ മതി ഇതാണെൻ്റെ നമ്പറ് ഓക്കേ താങ്ക് യൂ